പാചകത്തിനായി ഞാൻ അടുക്കളയിൽ ഒരു രണ്ട് മണിക്കൂറൊക്കെ ചിലവഴിക്കാറുണ്ട് പിന്നെ ക്ലീനിങ്ങിന് മറ്റുമായി ഒരു മണിക്കൂറും ചിലവഴിക്കാറുണ്ട് പാ എനിക്ക് അടുക്കളയിൽ ഞാൻ പാചകമെല്ലാം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ എനിക്കെല്ലാം ക്ലീൻ ചെയ്താലെ എനിക്കൊരു മനസ്സിനൊരു തൃപ്തി വരാറുള്ളൂ ആ അവിടെയെല്ലാം തൂ ഡെറ്റോളൊക്കെ ഇട്ടു സ്ളാ മേ മി സ്ലാബൊക്കെ തുടച്ച് എല്ലാം നല്ല വൃത്തിയാക്കി ത നിലമൊക്കെ തൂത്ത് വൃത്തിയാക്കണം എന്നെനിക്കൊരു ഒരു പോളിസി ഉണ്ട് അപ്പം അതിനനുസരിച്ച് ആണ് ഞാൻ ചെയ്യുന്നത് അപ്പം ഏറ്റവും കൂടുതൽ സമയമെടുത്ത് ചെയ്ത ഒരു വിഭവം എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്തതിൽ കേക്ക് ഉണ്ടാക്കിയപ്പം എനിക്ക് ഒരുപാട് സമയമെടുത്തതായിട്ട് തോന്നി അതുപോലെ അത് നമ്മൾ ഓൺ അതിൻ്റെ റെസിപ്പിയെന്ന് പറഞ്ഞാൽ തന്നെ നമ്മളത് പൊങ്ങാനൊക്കെ വെക്കുകയൊക്കെ ചെയ്യണമല്ലോ കുറേ സമയം അതിന് വേണ്ടി എല്ലാം മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് കുറച്ച് ടൈം ഒക്കെ കൊടുക്കണം എന്നാലെ അതിൻ്റെ ഈസ്റ്റ് ഒക്കെ പ്രവർത്തിപ്പിച്ച് അത് പൊങ്ങി വരികയൊക്കെ ചെയ്യത്തുള്ളൂ അപ്പം ആ കേക്ക് എട് ഉണ്ടാക്കിയ ആ ഒരു ഇത് മാത്രമേ എനിക്കങ്ങനെ സമയം എടുത്തതായിട്ട് അനുഭവപ്പെട്ടിട്ടുള്ളൂ അല്ലെങ്കിൽ എനിക്കങ്ങനെ ഒരുപാട് സമയമൊന്നും എടുക്കാറില്ല ഞാൻ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് തന്നെ അരിഞ്ഞും തേങ്ങയൊക്കെ ചിരണ്ടി വെച്ച് ചെ ഒരു രണ്ടൂ മൂന്ന് ദിവസത്തേക്ക് ചിലപ്പം ചിരണ്ടി വെക്കാറുണ്ട് അതുപോലെ ഉള്ളിയൊക്കെ ആണെങ്കിലും ഞാൻ പൊളിച്ചൊക്കെ വെയ്ക്കാറുണ്ട് അതുകൊണ്ടു എനിക്കങ്ങനെ സ ഒരുപാട് സമയമെടുക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല